ഓൺലൈനായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസം മാറിയത് കൊണ്ടുതന്നെ വളരെ ഉപകാരമാണ് ഒന്നാമത് ഉണ്ടായിട്ടുള്ളത് കാരണം നമുക്കിപ്പോൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോവണ സ്കൂളിൽ കൊണ്ടാക്കണം അതേപോലെ അവരെ വിളിച്ചിട്ട് വരണം നമുക്കാ ടൈം ലാ ടൈമൊക്കെ നമുക്ക് ലാഭിക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഹോസ്റ്റലിൽ വർക്കിന് പോവണം ഇപ്പോൾ വൈഫിനു ആണെങ്കിൽ വീട്ടിൽ ജോലി ഉണ്ടാവും തിരക്കുണ്ടാവും നമ്മള് കൊണ്ടുവിടണം അതേപോലെ ഇതിപ്പോൾ അതൊന്നും ഉണ്ടാവുന്ന ഇതില്ല നമുക്കിപ്പോൾ കുട്ടികളെ മൊബൈൽ ഫോണുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എല്ലാ ക്ലാസ്സുകളവർക്ക് അറ്റ് എ ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും കുട്ടികള് സേഫാണ് എവിടേക്കും പോകില്ല കോളേജ് സ്കൂളിൽ പോയി പറഞ്ഞാൽ സ്കൂളിൽ പോയി വൈകുന്നേരം വരുന്ന വരെ വീട്ടിൽ ടെൻഷനായിരിക്കും അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതേപോലെ കുട്ടികൾക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നതെന്താ വെച്ചാൽ അവർക്ക് ചുറ്റുമുള്ളവർക്ക് ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ കളിക്കാൻ കളിക്കാൻ പറ്റില്ല അവർക്ക് ഫ്രണ്ട്സുമായിട്ട് കളിക്കാനും തമാശ പറയാൻ അവരുടേതായ ആ ഒരു സ്പേസവിടെ ഇല്ലാതാവുകയാണ് അതല്ലാണ്ട് ബാക്കിയൊക്കെ നല്ലതാണു നമുക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം